ചായയെന്ന് പറയുന്നത് മലയാളികൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനം അതാണ് ചായയെന്ന് പറയാന്ന് വേണമെങ്കിൽ കാരണം രാവിലെ എണീച്ച് കഴിഞ്ഞപാട് ഒരു ചായ കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഭയങ്കര ഭയങ്കര പ്രശ്നമായേക്കും ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു പണിയെടുക്കാനോ ഒരു കാര്യം ചെയ്യാനോ നമുക്കൊരു മൂഡ് ഉണ്ടാവില്ല മൂഡ് ഉണ്ടാവില്ല എന്ന് തലവേദന അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും അതിന്റെയൊന്നിച്ച് ഉണ്ടാവാൻ ചാൻസുണ്ട് ചായ കുടിയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മളെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽനിന്ന് വിട്ട് മാറാത്ത ഒരു പോലത്തെയൊരു കാര്യാമാണ് ചായ കൂടിയെന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലയാളികൾ ഇന്ത്യയിൽ എല്ലാവർക്കും ചായ ഇഷ്ടം ആണ് പക്ഷേ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ചായേനെ ഇഷ്ടപ്പെടുന്നവർ എന്ന് പറയും ആ രാവിലെ അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവർക്ക് ചായ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു ബൂസ്റ്റ് ആയിട്ട് നമുക്ക് ചായയെ യൂസ് ചെയ്യാം യൂസ് ചെയ്യാനല്ല ഒരു ആവശ്യത്തിന് അവർക്ക് പറ്റും കാരണം അവരെ ഓരോ കാര്യം ചിലപ്പോൾ ഈ ചായേനെ ഡിപെന്റ് ചെയ്തിരിക്കും ചില ആൾക്കാർ രാവിലേയും ഉച്ചക്കും രാത്രിക്കും അല്ലെങ്കിൽ കുറേ സമയം ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അത് ശരിയല്ല അതൊരു നല്ലൊരു ഇതല്ല രണ്ട് നേരം ചായ കുടിക്കുന്നത് കുഴപ്പമില്ല രാവിലെ ഒരു ചായ രാത്രിക്ക് ഒരു ചായ അത് കിട്ടിയിട്ടില്ലെങ്കിലാണ് പ്രശ്നം വരുന്നത് കാരണം ഭയങ്കര പ്രശ്നമായിരിക്കും അതില്ലെങ്കിൽ നമ്മളെ നാട്ടിലെല്ലാം ചായയുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ രീതി ഒരു ചായ പല ടൈപ്പുണ്ട് കുറേ ചായയുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിലൊരു ടൈപ്പ് നമ്മളൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ ചായ ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ ഒന്നൊന്നൊര നാലാൾക്കാരുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് പാലും ബാക്കി ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അതിൽ അത് തിളപ്പിക്കും അത് ആദ്യം തിളപ്പിച്ച് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ചായപ്പൊടി ഇടും ചായപ്പൊടിയെന്ന് വച്ചാൽ നമ്മൾ ഒരോരാൾക്ക് ഓരോ കടുപ്പത്തിനനുസരിച്ചാണ് ചായപ്പൊടി ഉണ്ടാകൂല്ലേ അപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ കോമണായിട്ട് നമുക്ക് ചായപ്പൊടി ഇടാൻ പറ്റും അപ്പോൾ എത്രയാണ് അളവ് ഓരോരാളെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഓരോ ആൾക്കുള്ള ചായപ്പൊടി ഇടാൻ പറ്റും അങ്ങനെ ചായപ്പൊടി ഇട്ട് പിന്നതിലേക്ക് പഞ്ചസാര പഞ്ചസാരയെന്ന് വച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വച്ചാൽ പഞ്ചസാര അപ്പം ഞാൻ തിളപ്പിക്കും കാരണം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പഞ്ചസാര ആയത് കൊണ്ട് പക്ഷേ എന്നാൽ അത് ചെയ്യുന്നത് ശരിയല്ലായെന്ന് എനിക്കറിയാം സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെ വച്ചാല് ചായപ്പൊടി ഇട്ട് പാലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ ശേഷം അത് ഒരു പാട്ടയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ആക്കി കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് നമ്മൾ ചായ പഞ്ചസാര ഇട്ട് നല്ലോണം ഏന്തി കുടി കഴിക്കേണ്ടത് എന്നാലേ അതിനൊരു ടേസ്റ്റ് കിട്ടൂ പക്ഷേ ഞാൻ സാധാരണ അടുപ്പത്ത് നിന്ന് പഞ്ചസാര ഇടും അങ്ങനെ അത് അത് മാറ്റും എന്നിട്ട് നല്ല രീതിയിൽ ചില സമയത്ത് ബൂസ്റ്റ് ചേർക്കാറുണ്ട് നമക്ക് ബൂസ്റ്റ് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ബൂസ്റ്റിൽ ചായയിൽ ബൂസ്റ്റ് കൂ കൂട്ടി കഴിക്കാൻ ഭയങ്കര കുടിക്കാൻ ഭയങ്കര ടേസ്റ്റുണ്ട് അങ്ങനെ ബൂസ്റ്റ് കലക്കി കുടിക്കാറുണ്ട് നല്ല രീതിയിൽ ഏന്തണം അതാണ് ആ ചായയുടെ ഒരു നമ്മളൊക്കെ തട്ടുകടയിലും പോയി കാണാറില്ലേ അവർ വല്യൊരു പാട്ട എടുത്ത് വല്യ അത്രയും ഉയരത്തിൽ പിടിച്ചിട്ടവർ ഏന്തും ചായ എന്ന് വച്ചാലതിന് ടേസ്റ്റ് കൂടുമെന്നാണ് അതിൻ്റെ ഒരിത് വരുന്നത് അങ്ങനെ അത് ഏന്തി എല്ലാവർക്കും എല്ലാവരും കുടിക്കും പിന്നെ വേറൊരു രീതിയിലെന്ന് പറയുന്നത് ഏലക്കായ് ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് ഏലക്കായെന്ന് പറയുമ്പോൾ സാധാരണ ചായ തിളപ്പിക്കുന്നത് പോലെ ചായപ്പൊടി ഇട്ട് പാലിൽ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ ഏലക്കായ ചേർക്കും ഏലക്കായ ചേർത്തിട്ട് നല്ല രീതിയിൽ തിളക്കണം ആ ഏലക്കയുടെ മണം ആ ചായയിൽ മൊത്തം പിടിക്കണം എന്നാലേ അതിനു ടേസ്റ്റ് കിട്ടൂ അപ്പോൾ ഏലക്കാ ചേർത്ത് നല്ല രീതിയിൽ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പെട്ടന്ന് നടന്ന് കുറച്ചധികം ചായ അളവിൽ വച്ചിട്ട് നമ്മളത് കുറുക്കി കുറുക്കി പോവുമായിരിക്കും ചിലപ്പം ചായയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നെ അതിന് സാധാരണ രീതിയിൽ ചായപ്പൊടി ഇട്ട് പാട്ടയിൽ വച്ച് ഏന്തീട്ട് സാധാരണ രീതിയിൽ കുടിക്കും പിന്നൊരു ചായയെന്ന് പറയുന്ന മസാല ചായ ഉണ്ടാക്കും മസാല ചായ നമ്മൾ ചായപ്പൊടി പാലും അടുപ്പിൽ വച്ച് തിളപ്പിച്ച് അതിലേക്ക് മസാലയെന്ന് പറയുമ്പോൾ നമ്മൾ ഏലക്ക ഗ്രാമ്പു പിന്ന പട്ട ഇതിട്ടിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ചായ കുടിക്കാൻ പറ്റും അത് അത് സാധാരണ രീതിയിൽ പോലെ തന്നെ ചായപ്പൊടിയും പാലും തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ഏലക്കയും ഗ്രാമ്പുവും പട്ടയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിക്കും നന്നായി തിളപ്പിച്ചിട്ട് അതിൻ്റെ മണം നമുക്ക് അതിൻ്റെ മണം വരുന്ന സമയത്ത് അത് അതിൽ മാറ്റിയിട്ട് പാട്ടേലിട്ട് പഞ്ചസാരയിട്ട് ഏന്തിയേന്തി കുടിക്കും പിന്നെ വരുന്നത് ഇഞ്ചി ചായ ഇഞ്ചി ചായ ഉണ്ട് അത് എങ്ങനെയെന്ന് വച്ചാല് സാധാരണ രീതിയിൽ നമ്മൾ പാലും വെള്ളവും കൂടി തെളപ്പിച്ച് അതിലേക്ക് ചായപ്പൊടി ഇടുന്ന സമയത്ത് ഇഞ്ചി കൂടി ഇടും ആ ഇഞ്ചി നല്ലോണം ചതച്ചിട്ടാണ് ഇഞ്ചി ഇടുന്നത് മറ്റേച്ചായി ഇട്ടാൽ നമുക്ക് ശരിക്ക് കിട്ടണമെന്നില്ല നേരെ അപ്പോൾ ചതച്ചിട്ട് നല്ലോണം ഇഞ്ചി ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കും തിളപ്പിച്ച ശേഷം സാധാരണ രീതിയിലുള്ള പോലെ അത് നമ്മൾ പാട്ടയിലാക്കി ഏന്തിയേന്തി കുടിക്കും പിന്ന ഈ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ചുമ പനി അങ്ങനെയുള്ള അസുഖങ്ങളുള്ള സമയത്ത് നമ്മൾ ചുക്ക് ആക്കാറുണ്ട് ചുക്ക് കാപ്പിയല്ല ചുക്ക് ചായ ആക്കാറുണ്ട് അത് എന്താണെന്ന് വച്ചാൽ പാലിടാതെ കട്ടൻ ചായയാണ് ആക്കുന്നത് പാലിടാതെ ആ വെള്ളത്തിൽ കുറച്ച് തുളസിയില പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ വെല്ലം ഇഞ്ചി ഏലക്ക ഇതെല്ലം ചതച്ചിട്ടിട്ട് ആ തിളപ്പിക്കും തിളപ്പിച്ച ശേഷം കുറച്ച് മധുരത്തിന് പഞ്ചസാര ഇടേണ്ട ആവശ്യം ഇല്ല കാരണം മധുരത്തിന് വേണ്ടി വെല്ലം ഓൾറെഡി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പഞ്ചസാര ഇടേണ്ട ആവശ്യം ഇല്ല നമ്മൾ ഇത് തിളപ്പിച്ചിട്ട് അത് ആ ചൂടാറുന്നതിന് മുന്നേ നമ്മൾ കുടിക്കണം എന്നാലേ ആ ഒരു ചൂടോടെ നമ്മളെ തൊണ്ടയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളെ തൊണ്ട വേദനയോ ചുമ പനി അങ്ങനെയെല്ലാം കുറേ എന്തെങ്കിലും ഉണ്ടെങ്കിലെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ അവരുടെ ചായ ഇങ്ങനെ ഓരോ ടൈപ്പ് ചായ നമ്മുടെ ട്രൈ ചെയ്യണം നമ്മൾ ഒരു ചായതന്നെ നമ്മൾ എപ്പോഴും കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നില്ല അപ്പോൾ ഓരോ ദിവസം ഓരോ ടൈപ്പ് ചായ നമ്മൾ ട്രൈ ചെയ്യും ആ പിന്നെ സാധാരണ ഇപ്പം എങ്കിൽ പാൽ കിട്ടാത്ത സമയത്ത് നമ്മൾ കട്ടൻ ചായ ആക്കി കുടിക്കും പക്ഷെ കട്ടൻ ചായയെക്കാളും ടേസ്റ്റ് പാൽച്ചായക്കാണെന്നാ എനിക്ക് തോന്നുന്നത് അത് കട്ടൻ ചായ അത്ര അത്ര പ്രിഫറ് ചെയ്യുന്നില്ല അത്ര ഇഷ്ടമല്ല കട്ടൻ ചായ പാലൊഴിച്ച ചായ കുടിച്ച് കുടിച്ച് കുടിച്ച് നമുക്ക് രാവിലെ ഇപ്പോൾ എപ്പോഴും പാലും ചായ കുടിച്ച് കുടിച്ച് നമുക്ക് പെട്ടെന്നൊരു ദിവസം കട്ടൻ ചായ കുടിക്കണമെന്ന് പറയുമ്പോൾ നമുക്കത് പറ്റൂല്ല അപ്പോൾ പാലുംചായ കുടിക്കാനായിരിക്കും എല്ലവർക്കും കൂടുതലും താൽപ്പര്യം പിന്നെ ഇന്ത്യയിൽ നോർത്തിലൊക്കെ പല പല ടൈപ്പ് ചായ ഉണ്ടാക്കുന്നുണ്ട് ചായ ചായക്കായിട്ട് തന്നെ ഇപ്പോൾ ഒരു കട ഉണ്ട് ചായ മാത്രം ഉള്ള കട നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ മണൽ മണലിൽ മണൽ ഒരു ചട്ടി ഒരു ചട്ടി പോലത്തെ പാത്രത്തിൽ വച്ച് അത് ചായ ആക്കി തരാറുണ്ട് അത് അവിടെ എങ്ങനെ എന്നത് പല ടൈപ്പ് ചായ നമുക്ക് കിട്ടും നമ്മളീ സാധാരണ പോലെ നമ്മൾ പാൽ തിളപ്പിച്ച് അതല്ല അവർ കൂടുതലും പാൽ പ്രിഫറ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ പാലെടുത്തിട്ട് അവർ ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ആ പിന്നെ ഓരോ ആൾക്കാർക്കും ഓരോ ചായ ആയിരിക്കുമല്ലോ കാരണം നമ്മളിപ്പോൾ കേരളത്തിലാക്കുന്ന ചായ ആയിരിക്കൂല്ല ചിലപ്പോൾ തമിഴ്നാട്ടിലാക്കുന്നത് അതായിരിക്കൂല്ല ചിലപ്പോൾ ആന്ധ്രയിലാക്കുന്നത് അതല്ലായിരിക്കും ചിലപ്പോൾ ഡെല്ലീലാക്കുന്നത് ആ ഇപ്പോഴത്തെ ആൾക്കാർക്കെല്ലാം ചായ ഇല്ലാതെ പറ്റൂല്ല ചായ ആണ് അവരെ മെയിൻ ഇതെന്ന് പറയുന്നത് ഓരോ ജോലി ഇപ്പോൾ ജോലിയെല്ലാം ചെയ്യുന്ന സ്ഥലത്തിപ്പോൾ ചായ ഉണ്ട് ചായ മെഷീൻ ചായ ആക്കുന്ന സ്ഥലമുണ്ട് അതെല്ലാം എന്ന് പറയുന്നത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടീട്ടാണ് അപ്പോൾ ചായേനെ നമുക്കൊരു റിഫ്രഷ്മെന്റിന് വേണ്ടീട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ചായേനെക്കുറിച്ച് പറയാനുള്ളത്